കരകൗശല ഉല്പ്പാദനത്തില് ധാര്മികമായും പാരിസ്ഥിതികമായും സുസ്ഥിരതയുടെ പ്രശ്നങ്ങള് കേരളത്തിലെ കലാ കര കൗശല മേഖലയെ ബാധിക്കുന്നുണ്ട് പ്രധാനമായും പരിസ്ഥിതി സൗഹൃദ സാമഗ്രഹികള് ഉപയോഗിക്കാത്തതും അതുപോലെ തന്നെ ന്യായപരമായ വ്യാപാരം നടത്താത്തതും ധാര്മികകരമല്ലാത്ത തൊഴില് രീതികള് ഉപയോഗിക്കുന്നതുമാണ് ഇതിലെ പ്രധാന പ്രശ്നങ്ങളായി കാണപ്പെടുന്നത് പാരിസ്ഥിതിക പാരിസ്ഥിതിക സൗഹൃദ സാമഗ്രഹികള് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രകൃതിയില് നിന്നെടുക്കാത്ത അതുപോലെ തന്നെ പ്രകൃതിയോട് ചേരാത്ത തരത്തിലുള്ള വസ്തുക്കള് ഉപയോഗിച്ചിട്ടുള്ള കരകൗശല നിര്മാണം ഫോര് ഉദാഹരണത്തിന് പ്ലാസ്റ്റിക് ഉപയോഗിച്ചു കൊണ്ടുള്ള കരകൗശല നിര്മാണങ്ങള് പ്രകൃതിയെ വളരെ അധികം ബാധിക്കുന്നതാണ് അതുപോലെ തന്നെ മറ്റൊരു പ്രശ്നമാണ് ന്യായമായ വ്യാപാരം മുതലാളിമാര് അല്ലെങ്കില് തൊഴില് ചെയ്യുന്ന ആള്ക്കാര് വളരെ കൂട്ടിയ കൂടിയ പൈസയില് അവര്ക്ക് വളരെ ലാഭം കിട്ടുന്നതിനായി പൈസ വളരെ കൂട്ടി ഓരോ കലാ വസ്തുക്കളും കരകൗശല വസ്തുക്കളും വില്ക്കുന്നത് സമൂഹത്തെ വളരെയധികം വ്യാപിക്കുന്നുണ്ട് അത് അവരെ ബാധിക്കുന്നുമുണ്ട് ധാര്മിക തൊഴില് രീതികള് പണ്ടു കാലത്ത് എന്ന് പറയുമ്പോള് അത് ഒരു തൊഴില് ചെയ്യുമ്പോള് അല്ലെങ്കില് ഒരു അല്ലെങ്കില് കല കൗശല കാര്യങ്ങള് ചെയ്യുന്നത് വളരെ കൃത്യമായ രീതിയിലാണ് എന്നാല് ഇന്നത്തെ കാലത്ത് വളരെ കൃത്രിമമായ രീതിയിലും കൃത്രിമങ്ങള് ചേര്ത്തുമാണ് അവര് കലക കരകൗശലങ്ങളെ ഉപയോഗിക്കുന്നത് അത് കൊണ്ടു തന്നെ അവരുടെ തൊഴില് രീതികള് ധാര്മികമായി നമുക്ക് കാണാന് സാധിക്കുകയില്ല